ആ പറഞ്ഞോ ആ ഗൈഡാണ് പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ഇവിടെ ഇഷ്ടം പോലെ സ്പോട്ട്കളുണ്ട് നിങ്ങളെത്ര പേരുണ്ടാവും ഏകദേശം

ആ എന്നാൽ നാല് പേര്ക്കായിട്ടുള്ളൊരു പാക്കേജുണ്ട് ഇപ്പം കയ്യിൽ ആ അപ്പോൾ അത് വരുന്നത് സ്ഥലങ്ങൾ കുണ്ടല് ടോട്ടല് സലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പം അഞ്ചാറ് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇപ്പം ഒരഞ്ചാറ് സ്ഥലങ്ങളുണ്ടാവും ആ ആ ആ ഉണ്ട് അതൊക്കെയുണ്ട് തെമ്മഗിരി നമ്മൾ ടെമ്പിളറിയാമോ ടെമ്പിളിലേയ്ക്ക് പോവുന്ന വഴിക്കാണ് പിന്നെ കുറുവാദ്വീപ് വരുന്നത് നമ്മടെ പുല്പ്പള്ളിക്കൊക്കെ പോവുന്ന വഴിക്കാണ് പിന്നെ പുല്പ്പള്ളിയുമുണ്ട് ഇഷ്ടംപോലെ സ്പോട്ട്കളുണ്ട് പിന്നെ പിന്നെ നമ്മടെ ഗുണ്ടല്പ്പേട്ട് അവിടെയെക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് അതെ അതെ അതെ ബോര്ഡറാണ് നമ്മൾ എടുക്കുമ്പം മൊത്തമായിട്ട് വയനാട് മൊത്തമായിട്ടാണ് എടുക്കുക പിന്നെ വയനാട്ടിൽത്തന്നെ കൂടല്കടവ് പിന്നെ ബാണാസുരാ ഡാമ് ആ അത് വേണ്ട ആ നമ്മൾ എടുക്കുമ്പം മൊത്തമായിട്ടേ എടുക്കൂ അപ്പം നിങ്ങൾക്ക് എത്ര ദിവസത്തേയ്ക്കാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലം കുറച്ചുംകൂടെ കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ പെട്ടന്നറിയാൻ പറ്റുമായിരുന്നു ആ അതെ അതെ ആ അപ്പോൾ എന്തായാലും ഫണ്ടിന്റെ നമുക്കെന്തായാലും എത്ര സലങ്ങളും പിന്നെ നൈറ്റും എത്ര എങ്ങനെയൊക്കെ ഫുഡ് വേണം എന്നെക്കെ നോക്കിയിട്ട് നിങ്ങളെത്ര എത്ര ദിവസത്തെയാണെന്ന് പറയുവാണെങ്കിൽ നമക്ക് സുഖമായിരുന്നു മൊത്തം എല്ലാം ഒന്ന് കണക്ക് കൂടിയിട്ട് നോക്കാമായിരുന്നു ആ ഫുഡും ഞങ്ങൾ തന്നെയാണ് വണ്ടി ഇല്ല അല്ലേ നിങ്ങൾ വഴി അപ്പം വണ്ടിയുടെ നിങ്ങൾ വയനാട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് വണ്ടി ഗേഡിന്റെതുണ്ടാവുക അതായത് നമ്മുടെ അക്കാഡമീടെ അപ്പോഴേ വണ്ടി ഉണ്ടാവുള്ളൂ ആ ആ ആ വണ്ടി ഉണ്ടാവും ട്രക്കിങ്ങിനും മറ്റുമായിട്ടും പിന്നെ ട്രെക്കിങ്ങിനെക്കെ സെപ്പ്രേയ്റ്റ് വണ്ടിയുണ്ട് ഓഫ്റോഡ് ജീപ്പ് ഉണ്ട് ഓഫ്റോഡ് പല വണ്ടികളും ഉണ്ട് പിന്നെ അല്ലാത്ത മോഡല് നമ്മുടെ സാധാ വണ്ടികളും ഉണ്ട് ആ ഓക്കെ എന്തായാലും വരുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എത്ര പേരും ഉണ്ടാവും നോക്കിയിട്ടൊന്ന് വിളിക്കൂ കേട്ടോ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക് യൂ